ഹലോ ഇത് ബ്രില്യൻറ്റ് എഡ്യൂക്കേഷൻ അല്ലേ ഞാൻ അമൃതാ എന്ന് പറയുന്ന ഒരു ആളായിരുന്നു

അ എനിക്ക് അവിടെ ഒരു ഐ ടി ഫീൽഡിലൊരു ഇത് എന്തേലും എന്തേലും കോഴ്സുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് അല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അ ഓക്കെ

ബാംഗ്ലൂര് എവിടെയാണ് എങ്ങനെയാണ് ഫീസൊക്കെ വരുന്നത് ബാംഗ്ലൂര്

ഓക്കെ അപ്പോൾ ഹോസ്റ്റലും നിങ്ങളുടേത് തന്നെ ആണോ അവിടെ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കില് ഇതിൻ്റെ സ്കോപ്പൊക്കെ എങ്ങനെയാണ് ജോലി പെട്ടെന്ന് കിട്ടുവോ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങള് ഇതിന് എന്തേലും മാർക്ക് എന്തേലും ഉണ്ടോ ഇപ്പോൾ ഇത്ര പെർസെൻ്റെജ് വേണം ഇല്ലേൽ എടുക്കണം അങ്ങനെ എന്തേലും എനിക്കിപ്പോൾ പ്ലസ് ടൂവില് നയൻറ്റി ടു പെർസെൻറ്റെജ് ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഐ ടി ക്ക് ഇത്ര വേണമെന്നുണ്ടോ ഐ ടി സബ്ജെക്ടിന് ഇത്ര വേണമെന്ന് അങ്ങനെ എന്തേലും ഉണ്ടോ മാർക്ക് അ എനിക്ക് ഐ ടി ക്ക് നയൻറ്റി വൺ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് ബാങ്ക് എനിക്ക് ബാംഗ്ലൂര് ആണ് താല്പര്യം അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ഓഫീസിലോട്ട് വരണോ ഓക്കെ ഞാൻ അപ്പോൾ വരുമ്പൊ ഫീസ് എന്തേലും കരുതണോ നിങ്ങൾക്ക് അവിടെ

ഓക്കെ മാം താങ്ക് യു